ഹലോ ഞാൻ ആര്യ ആയിരുന്നു ഞാൻ നേരത്തെയൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ചെട്ടനൊരു പത്ത് മിനിറ്റിൽ എത്താന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ എത്തിട്ടില്ല എനിക്ക് കുറച്ചു ജെന്റായിട്ട് ഒരു മീറ്റിങ്ങുണ്ടാർന്ന് വേഗം എത്തുവായിരുന്നെങ്കിൽ നന്നായിരുന്നു അതെ ഓക്കെ ചേട്ടനിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നിട്ട് അ അ മാവേലിക്കര അല്ലേ മാവേലിക്കര എവിടെയായിട്ടാണ് മാവേലിക്കര മറ്റെ ഓക്കെ അതെ മറ്റേ പള്ളിന്റടുത്ത് അല്ലേ അധികം വൈകാണ്ട് എത്തുമോ ഇനിയെന്തേലും തിരക്കുണ്ടോ അ ഓക്കെ ഓക്കെ എന്നാൽ ഒരു ടെൻ മിനിറ്റ്സിനുള്ളിൽ എങ്ങനേലും എത്തുമോ ചെന്നിട്ട് ഒരു അർജന്റ് മീറ്റിങ് ഉണ്ടായിരുന്നു അതറ്റന്റെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അതാണ് ഓക്കെ ഓക്കെ എനിക്ക് ചേട്ടനെന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ വേറേതേലും ക്യാബ് ക്യാബ് ബുക്കെയ്തു തരുമോ അങ്ങനെ എന്തേലും ചെയ്താലും മതി അ ഓക്കെ ഓക്കെ ഇനി ഇപ്പോൾ ചേട്ടൻ എത്തിയിട്ട് ഞാൻ എത്തുമ്പോൾ എന്തായാലും കുറച്ച് ലേറ്റാവും സോ ചേട്ടൻ മക്സിമം പറ്റുന്ന അത്രെയും ഫാസ്റ്റായിട്ട് വരാൻ നോക്ക് മാവേലിക്കര പള്ളിന്റവിടായിട്ടല്ലേ അവിടെന്നിങ്ങോട്ടേക്ക് പത്ത് മിനുറ്റ് മതി ഓക്കെ ഏട്ടാ എന്നാൽ എത്താൻ നോക്ക്